ഒമ്പത് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തി രണ്ട് മൂന്ന് രണ്ടായിരത്തിരണ്ട് നാല് രണ്ട് രണ്ടായിരത്തി ഒന്ന് ഇരുപത്തി മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന്